ഹലോ ഗ്യാസ് ഏജൻസിയാണോ ആ ഇട്ടിത്താനത്തുന്നാണെ വിളിക്കുന്നതേ ഞങ്ങൾ പുതിയ താമസക്കാരാണെ ഞങ്ങൾ തെന്നണായിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ ഇട്ടിതാനത്തോട്ടു വന്ന് വന്നതാണെ അപ്പം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഗ്യാസ് വേണം ഗ്യാസിനു വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയായിരുന്നത് സാറെ അതിനു ഞാനെന്തുവാ ചെയ്യേണ്ടത് ആ ഗ്യാസിൻ്റെ ബുക്കുമൊക്കെ ആയിട്ട് ആധാർ കാർഡുമൊക്കെയിട്ടു വരണോ ആ വരാമേ സാറെ ഇതിൻ്റെ നമ്മുടെ ഓഫീസെവിടെയാണ് നമ്മുടെ ഇട്ടിത്താനം സെൻറ്റ് മേരീസ് പള്ളിയുടെ പുറകു വശത്തല്ലേ ആ ആ ശരി സാറെ മനസ്സിലായി അവിടോട്ടു വരാമേ സാറെ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാർ ചെയ്തു തരണം എന്നാന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിള്ളേർ സ്കൂളിൽ പോകുന്നതായതു കൊണ്ടു പിള്ളേർക്കു രാവിലെ പാചകമൊക്കെ ചെയ്യുന്ന ഗ്യാസിലാണ് നമ്മൾ പുതിയ താമസവും കൂടി ആയത് നമുക്കിവിടുന്ന് ആരോടും ചോദിക്കാനൊന്നും പറ്റത്തില്ല പുതിയതായതു കൊണ്ട് അയൽപക്കമൊന്നും നമുക്കത്ര പരിചയമൊന്നുമില്ലാത്തതു കൊണ്ട് പിന്നെ വിറകു വെച്ചൊക്കെ കത്തിച്ച് വരുകാമെന്നു പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു ബുദ്ധിമുട്ടാണ് അത് ബുദ്ധിമുട്ടാണ് അത് കാരണത്തിനു പിള്ളേർക്ക് ഒരു എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തേനും ഓട്ടോ വരും അന്നേരം അതെ നമ്മുടെ അതിലും മുമ്പേ രാവിലെ എഴുന്നേറ്റിതൊക്കെ ചെയ്തപ്പം എനിക്ക് ഗ്യാസില്ലാതെ പറ്റത്തില്ല വിറക് വെച്ചൊന്നും കത്തിക്കാൻ നടക്കത്തില്ല അതു കാരണത്തിന് എനിക്ക് ഒൻപത് മണിയാകുമ്പോൾ പിള്ളേർക്കു സ്കൂളിൽ ചെല്ലേണ്ടതാണ് ഗ്യാ അതിനു ഞാൻ ഗ്യാസ് പെട്ടെന്നു കിട്ടാനായിട്ട് ഞാനെന്നാ സാറെ ഇതിൻ്റെ ബുക്കും ഇതെല്ലാമായിട്ട് അങ്ങോട്ടു വരാമേ ആധാർ കാർഡുമൊക്കെ ആയിട്ടു ഞാൻ വരാം അപ്പം എനിക്ക് ഗ്യാസ് ഗ്യാസിൻ്റെ ഇതായിക്കഴിയുമ്പം വരേണ്ട വഴി പൊൻപുഴേ വരണേ പൊൻപുഴേ വന്നിട്ടു വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട് വലത്തോട്ടു വന്നിട്ട് അവിടെ ഗ്രീൻ നഗറെന്നെഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടു നേരെ താഴോട്ടു വരിക താഴോട്ടു വന്ന് ഇടത്തോട്ടു നോക്കുമ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി കാണാം സാറെ എനിക്കതിനുള്ള കാര്യങ്ങൾ പെട്ടെന്നു നടത്തി തരണേ